ആ ആ ഞാൻ ഒരു ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നു പക്ഷെ എനിക്ക് ഇതിൻ്റെ പ്രൊസീജിയെർസും കാര്യങ്ങളൊന്നും കറക്റ്റ് ആയിട്ട് അറിയില്ല ഞാൻ അങ്ങനെ ട്രെയിനിൽ ട്രാവൽ ചെയ്യുന്ന ഒരാൾ അല്ല ആ നെക്സ്റ്റ് മന്തിലേക്കാണ് ബുക്ക് ചെയ്യാൻ വിചാരിക്കുന്നത് അപ്പൊഴേ എല്ലാവരും പറഞ്ഞു ഇപ്പൊഴേ നേരത്തെ ബുക്ക് ചെയ്തു ഇടണം എന്നുള്ളത് ഒരു ഇതുകൊണ്ടാണ് ആ പഞ്ചാബ് ടു കേരളയാണ് ബുക്ക് ചെയ്യുന്നത് അപ്പം എനിക്ക് അതിൻ്റെ റിസർവേഷനും കാര്യങ്ങളും അതിനെ കുറിച്ചൊന്നും വലിയ ഒരു ഐഡിയ ഇല്ല ഇല്ല നമ്മൾ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ നാല് പാസഞ്ചേഴ്സ് ആണ് അത് രണ്ട് ലേഡീസും രണ്ട് ജെൻസും ഇല്ല നമ്മൾ ടു ആൻഡ് ഹാഫ് ഡേയ്സ് ഉള്ളതുകൊണ്ട് കുറച്ചു ട്രാവൽ ചെയ്യാനുള്ളതു കൊണ്ട് നമ്മൾ ഏ സി ഓക്കെ ഓക്കേ ഓക്കെ ഏ സി എടുക്കാൻ താല്പര്യപ്പെടുന്നു ആണോ ജനറല് ഓക്കെ ഓക്കെ ഓക്കെ ജനറലും ഏസിയും ആ ഓക്കെ ഓക്കെ ഫൈൻ എന്നാൽ എ സീ ബുക്ക് ചെയ്യാൻ ആ ഓക്കെ ഓക്കെ നേരത്തെ ബുക്ക് ചെയ്യണം അല്ലേ ഓക്കെ താങ്ക് യു